കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടുകൾ ഒത്തിരിയുണ്ട് ഇപ്പം എൻ്റെ മ്യൂസിക് ലൈബ്രറിയിൽ തന്നെ അഞ്ഞൂറ് അറുനൂറോളം പാട്ടുകളുണ്ട് അല്ലാതെ ഞാൻ ഇപ്പോൾ പല പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ പാട്ടുകൾ കേൾക്കുന്നത് അല്ലാതെ യൂട്യൂബിൽ പാട്ടുകൾ കേൾക്കും അല്ലെങ്കിൽ സ്പോട്ടിഫൈ ഉണ്ടല്ലോ ഇപ്പം സ്പോട്ടിഫൈയിൽ പാട്ടുകൾ കേൾക്കും അപ്പം സ്പോട്ടിഫൈ ഇല്ലെങ്കിൽ യൂട്യൂബ് ഇല്ലെങ്കിൽ നമ്മുടെ മ്യൂസിക് ലൈബ്രറി ഇത് മൂന്നിലും ആണ് ഞാൻ പ്രധാനമായിട്ടും പാട്ട് കേൾക്കാറുള്ളത് പക്ഷേ മ്യൂസിക് ലൈബ്രറിയിൽ എല്ലാം നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന പാട്ടുകളാണ് പണ്ടായിരുന്നു ഈ ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ അങ്ങനെ ആക്കുന്ന ശീലം ഇപ്പോൾ എല്ലാം നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് ഡൗൺലോഡ് ഇപ്പോൾ നമ്മൾ ചെയ്യാറില്ല നമുക്ക് നെറ്റും എല്ലാം ഉള്ളതുകൊണ്ട് കേൾക്കണം തോന്നുമ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ സ്പോട്ടിഫൈയിലോ അടിച്ച് കയറി നമ്മൾ അങ്ങനെ അങ്ങ് കേൾക്കുവാണ് അപ്പോൾ ഇഷ്ടം ഉള്ള പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒത്തിരിയുണ്ട് സ് സ്പോട്ടിഫൈയിലൊക്കെ ഞാൻ നമ്മുടെ ഫേവറേറ്റ്സിൽ ആഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള പാട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പാട്ടുകളുണ്ട് ഇപ്പോൾ ചില ചിലത് ഹിന്ദി ആയിരിക്കാം ഭാഷകൾക്ക് അതീതമാണ് സംഗീതം എന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ ഹിന്ദി വരുന്നുണ്ട് ചിലത് തെലുങ്ക് ചിലപ്പോൾ തമിഴ് ചിലത് മലയാളം ഹിന്ദി അങ്ങനെയൊക്കെ അങ്ങനെ പല പല ഭാഷയിലുള്ള എന്നാലും കൂടുതൽ കേൾക്കുന്നത് മലയാളവും പിന്നെ വരുന്നത് ഹിന്ദി പിന്നെ തമിഴ് അങ്ങനെയാണ് കേക്കാ കേൾക്കാറുള്ളത്